ഹലോ ഡ്രൈവർ സോജനല്ലേ സോജാ എനിക്കൊരു ചെറിയ യാത്രയ്ക്ക് പോകാനുണ്ടേ അതിനൊരു കാർ ബുക്കെയ്യാൻ വേണ്ടിയാരുന്നു എയർപോർട്ടീ വരെ പോകാൻ വേണ്ടിയാണ് ഞങ്ങള് രണ്ടു പേര് ഉണ്ടാകും തിരിച്ചുവരുമ്പോൾ എൻ്റെ ബ്രദറും കൂടെ കാണും നാളെ രാവിലെ ആറരയ്ക്ക് നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം പത്തിന് എയർപോർട്ടിൽ ചെല്ലേണ്ടതാണ് അതുകൊണ്ട് രാവിലെ തന്നെ വരിക വീട് അറിയാമല്ലോ അല്ലേ കങ്കര ആശുപത്രിക്ക് സമീപമാണ് അവിടേക്ക് രാവിലെ ആറരയാകുമ്പോള് ഷാർപ്പ് ആകുമ്പോള് എത്തുക നമുക്ക് ഒരുമിച്ച് പുറപ്പെടാം